ആ എങ്ങോട്ടായിരുന്നു പോകേണ്ടത് ഡേവ് ആൻഡ് ടാക്സി സർവീസിലേക്ക് സ്വാഗതം ആരായിരുന്നു ആ ഓക്കെ നമ്മൾ പിക്കപ്പ് ചെയ്യേണ്ട പോയിൻറ്റൊന്ന് പറയാമോ പ്രോപ്പർ ജില്ല ഒന്ന് പറയാമോ കോട്ടയം ജില്ല ആ ഓക്കെ ഓക്കെ ഓക്കെ മണ്ണാറശ്ശാല വരെ എനിക്ക് തോന്നുന്നു കോട്ടയത്തുന്ന് നമുക്ക് ഏകദേശം അറുപത് കിലോമീറ്റർ അടുത്തുണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ പറയുമ്പോൾ ചങ്ങനാശ്ശേരീന്ന് പതിനഞ്ച് കിലോമീറ്ററ് പറയുമ്പോൾ നമുക്കൊരു അൻപത്തി രണ്ട് അൻപത്തി മൂന്നടുത്ത് ആ നമുക്ക് ഉറപ്പിക്കാം പ്രോപ്പർ ലൊക്കേഷൻ അയച്ച് തന്നാലേ നമുക്ക് കറക്റ്റ് കിലോമീറ്ററ് പറയാൻ പറ്റത്തുള്ളൂ ആ നമുക്ക് നമുക്ക് ആദ്യത്തെ കിലോ ഇരുപത് കിലോമീറ്ററിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയും പിന്നെ ഉള്ള ഓരോ കിലോമീറ്ററിന് ഇരുപത് രൂപയാണ് നമ്മള് കേട്ടോ ചാർജ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു പതിനെട്ട് കിലോമീറ്ററ് പോയെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപ ചാർജ് ചെയ്യും ആദ്യത്തെ ആദ്യത്തെ ഈ ഇരുപത് കിലോമീറ്ററ് നമ്മൾ പത്ത് രൂപ വെച്ചേ ചാർജ് ചെയ്യൂള്ളൂ പിന്നീടുള്ള ഓരോ കിലോമീറ്ററ് നമ്മൾ ഇരുപത് രൂപ വെച്ച് ചാർജ് ചെയ്യും അത് നമ്മൾ മിനിമം ആ മിനി മിനിമം ചാർജ് കിലോമീറ്ററിന് മുപ്പതാണ് നമ്മളത് ഇരുപത് വെച്ചേ മേടിക്കുന്നുള്ളൂ ആ മിനിമം ചാർജിലും പത്ത് രൂപ കുറവാണ് നമുക്കിത് നമുക്ക് ദൂരം ദൂരം കൂടുതലുള്ളോണ്ടാണ് ആ അതെ അതാണ് നമ്മൾ ഷോർട്ട് കട്ടിലുള്ള അങ്ങനെയാണ് അത് നമ്മളിപ്പോൾ ആലപ്പുഴയിലാണല്ലോ നമ്മുടെ ബേസ് അപ്പോൾ നമുക്ക് ആ ഏരിയ ഒന്നും പരിചയം ഇല്ല അപ്പോൾ ഒന്ന് ഷോട്ട് കട്ടുകളുണ്ട് നിങ്ങൾ സജെസ്റ്റ് ചെയ്യുന്ന വഴി നമ്മൾ പോവും നമുക്കത് കിലോമീറ്ററ് പറഞ്ഞാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതിപ്പം കിലോമീറ്ററ് കൂടുന്നത് അനുസരിച്ച് നമ്മുടെ എമൗണ്ടിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ ആ ആ അ ആളെണ്ണം നമുക്ക് പ്ര പ്രശ്നം അല്ല നമ്മുടെ നമുക്കിപ്പോൾ ആ നമുക്ക് ഓട്ടോ ഉണ്ട് അത് ഓട്ടോ തന്നെ രണ്ട് ടൈപ്പുണ്ട് മിനി ഉണ്ട് അപ്പം ഉണ്ട് അതുപോലെ നമുക്ക് കാർ അവൈലബിളാണ് നമുക്ക് ആളെണ്ണം അനുസരിച്ച് നമുക്ക് വണ്ടി ആ രണ്ട് പേര് രണ്ട് പേര് കാറെടുക്കുന്നുണ്ട് കാറാണ് ഇച്ചിരി കൂടെ പത്ത് മണിക്ക് പറഞ്ഞ് അതിൻറ്റൊരു ഇത് വെച്ചിട്ട് നമ്മളൊരു എട്ട് മണിക്ക് അവിടുന്ന് പിക്ക് ചെയ്യാനുള്ള തയ്യാറാണ് വേണ്ട വേണ്ട വേണ്ട കിലോമീറ്ററിൻ്റെ കിലോമീറ്ററ് നിങ്ങൾ കുറവുള്ള കിലോമീറ്ററ് പറഞ്ഞ് തരുവാണേൽ ആ വഴി തന്നെ നമ്മൾ പോവും നമ്മൾ കിലോമീറ്ററിനാണ് ചാർജ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഞങ്ങളുടെ സേവനം ആവശ്യപ്പെട്ടതിന് നന്ദിയുണ്ട് താങ്ക് യൂ